ചെടി വളർത്താൻ ഏറ്റവും ഉപയോഗപ്രദമായ മണ്ണ് എക്കൽ മണ്ണുകളാണ് കറുത്ത മണ്ണുകളാണ് ചെടി വളർത്തുന്നതിന് ഏറ്റവും ഉപയോഗപ്രദമായ മണ്ണ് ഞങ്ങളുടെ വീട്ടുകളിൽ ചെടി വളർത്തുന്നതിന് ഏറ്റവും ഉപയോഗിക്കുന്ന വളമെന്ന് ഉപയോഗിക്കുന്ന വളമെന്ന് പറയുന്നത് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും അരിഞ്ഞിട്ടുള്ള വേസ്റ്റുകളാണ് ഞങ്ങൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന പച്ചക്കറികൾ അതിൻ്റെ വേണ്ടാത്ത ഭാഗങ്ങളാണ് ചെടികൾക്ക് ഉപയോഗിക്കുന്ന കൂടാതെ മുട്ട പൊരിക്കുവാനോ കറി വയ്ക്കുവാനോ എടുക്കുന്നതിൻ്റെ ആ ഒരു തോട് ഞങ്ങൾ ചെടികൾക്ക് പൊടിച്ച് ഇട്ട് കൊടുക്കാറുണ്ട് ചാണകപ്പൊടി അതുപോലെ ആട്ടിൻ കാഷ്ടം തുടങ്ങിയവയെല്ലാം കോഴിക്കാഷ്ടം തുടങ്ങിയവയെല്ലാം ഈ ഒരു ചെടി വളർത്തുന്നതിനും അതുപോലെത്തന്നെ കൃഷിക്കും ഏറ്റവും അനുയോജ്യപരമായിട്ടുള്ള ഒരു വളമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളുടെ വീടുകളിൽ ഉപയോഗിക്കുന്നതും അതു തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടുകളിലുള്ള ചെടികൾക്ക് വളരെ അധികം ആയുസ്സും ഈടുനിൽക്കുന്നവയുമാണെന്ന് ഞാൻ കരുതപ്പെടുന്നു